ഇന്ത്യയിലെ ഗതാഗത സംവിധാനമെന്ന് പറഞ്ഞാൽ പഴേ കാലത്തിനേക്കാളും ഒരുപാട് മെച്ചപ്പെട്ടിട്ടാണ് ഉള്ളത് ആദ്യ കാലങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ നിന്ന് പറഞ്ഞാൽ റോഡുകൾ പിന്നെ ആളുകൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ പറഞ്ഞാൽ മണ്ണിട്ട മണ്ണ് കൊണ്ട് ഉള്ള റോഡുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ നാല് വരിപ്പാത എട്ട് വരിപ്പാത അങ്ങനെയുള്ള മേൽപ്പാത അങ്ങനെയൊക്കെ ഒരുപാട് യാത്രാ മാർഗ്ഗങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ട്രാഫിക്കാണ് ട്രാഫിക്ക് ബ്ലോക്കാണ് കൂടുതലായിട്ടുള്ളത് എന്തെങ്കിലും രോഗിയായിട്ടോ എന്തെങ്കിലും എമർജൻസി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ആ വഴിയിൽ ഫുള്ള് ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ യാത്രാ മാർഗ്ഗങ്ങൾ യാത്രാ മാർഗ്ഗങ്ങൾക്ക് ആളുകൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബൈക്ക് ലോറി ജീപ്പ് ബസ്സ് ഓട്ടോറിക്ഷ അങ്ങനത്തെ ഒരുപാട് വാഹനങ്ങളും ഉണ്ട് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ആളുകൾ ഒരുപാടു ഉണ്ട് പിന്നെ ഈ ഇത്രയും വാഹനങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ പിന്നെ ഗതാഗത ഗതാഗത ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗതാഗത സംവിധാനം ഇന്ത്യയിൽ തന്നെ ഇപ്പം ആദ്യത്തെ പോലെയല്ല ഇപ്പം ഒരുപാട് മറിയിട്ടും ഉണ്ട്